ഹലോ ഗ്യാസ് ഏജൻസി അല്ലേ ഇത് ഞാൻ നിഷയാണ് സംസാരിക്കുന്നത് കൊടുപ്പുന്നയിൽ നിന്നാണ് ഞാൻ ഒരു അടുത്ത ആഴ്ച്ച പന്ത്രണ്ടാം തിയ്യതി അടുത്തുള്ള മറ്റെ ഗോകുലം അപ്പാർട്ട്മെൻ്റിലേക്ക് സ്ഥലം മാറുകയാണ് അപ്പോൾ എനിക്ക് ഇവിടെ കൊടുപ്പുന്നയിൽ തന്നു കൊണ്ടിരിക്കുന്ന ഗ്യാസിൻ്റെ സിലിണ്ടറ് അങ്ങോട്ടേക്ക് മാറ്റിത്തരണം എനിക്ക് അതിനായിട്ട് എൻ്റെ അഡ്രസ്സ് ഒന്ന് എഴുതിക്കോ നോട്ട് ചെയ്തോളാമോ നിഷ എംമ്മ് ഗോകുലം അപ്പാർട്ട്മെൻ്റ് കൊടുപ്പുന്ന പിയ്യോ കൊടുപ്പുന്ന നിഷ എം ഗോകുലം അപ്പാർട്ട്മെൻ്റ് കൊടുപ്പുന്ന പി യ്യോ കൊടുപ്പുന്ന ഓക്കേ അടുത്തമാസം പന്ത്രണ്ടാം തിയ്യതി ആയിരിക്കും ഞങ്ങൽ അങ്ങോട്ട് മാറുന്നത് അപ്പം ആ ദിവസം തന്നെ ഞങ്ങൾക്ക് ആ ദിവസമോ അതിൻ്റെ ഏത് ദിവസാണ് നിങ്ങളുടെ അവിടെ ഡെലിവറിയുള്ള ആ അടുത്ത ദിവസം തന്നെ എനിക്ക് ഈ ഗ്യാസ് സിലിണ്ടർ തരണം